പ്രൊഫഷണൽ ജീവിതത്തിൻ്റെ പുറത്ത് നമ്മൾ നമ്മുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിംസ് ബാസ്കറ്റ്ബാൾ എൻ്റെ മെയിൻ ഒരു ഹോബിയാണ് പക്ഷെ ഇപ്പം ചില സാങ്കേതിക ഹെൽത്ത് ഇഷ്യൂസ് കാരണം തുടരുന്നില്ല തൽക്കാലത്തേയ്ക്ക് നിർത്തി വച്ചിരിക്കുകയാണ് പിന്നെ ഓൺലൈൻ ഗെയിമിംഗ് ഉണ്ട് നമ്മൾ മെയിനായിട്ട് പബ്ജി അങ്ങനെ ഉള്ള ഗെയിമുകളൊക്കെ കളിക്കാറുണ്ട് ഒരു ടൈം പാസ്സാണ് നമ്മൾക്ക് ടൈം പോകുന്നത് അറിയില്ല അപ്പം ചില ഫ്രീ സമയങ്ങൾ കിട്ടും നമുക്ക് സ്ട്രെസ്സ് സ്ട്രെയിനൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു എഞ്ചോയ്മെൻ്റിനു വേണ്ടി പല ഓൺലൈൻ ഗെയിമുകളും ചെയ്യാറുണ്ട് പിന്നെ ഉപകരണങ്ങൾ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഗിത്താറ് പിയാനോ ഒക്കെ പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലൂറ്റ് അതേപോലെ നമ്മുടെ മൗത്ത് ഓർഗൺ മൗത്ത് ഓർഗൺ വളരെ ഇഷ്ടമുള്ള ഒരു ഓർഗൺ ആയിരുന്നു ഒരു ഇൻസട്രുമെൻ്റാണ് മ്യൂസിക്ക് ഇൻസട്രുമെൻ്റാണ് മൗത്ത് ഓർഗൺ എൻ്റെ കയ്യിൽ മൗത്ത് ഓർഗൺ ഉണ്ടായിരുന്നു അതു പിന്നീട് കാലാകാലമായപ്പം നശിച്ചുപോയി പിന്നെ നമ്മളതിൻ്റെ പുറമേയുള്ള പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം അതൊക്കെ ഇപ്പം പതിയെ പതിയെ നിർത്തി എന്നാലും സൈഡായിട്ട് വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നുണ്ട്